ഫോട്ടോഗ്രാഫിയെന്ന് പറയുന്നത് എനിക്കൊരു ക്രയ്സാണ് ഞാൻ പണ്ട് മൊബൈല് കൈ വന്നപ്പം മുതൽ ഞാൻ ഫോട്ടോഗ്രാഫി തുടങ്ങിയതാ അതിനുമുപ് തന്നെ എനിക്ക് ചെറിയ ചെറിയ ഫോട്ടോഗ്രാഫ് ഫോട്ടോ ഷൂട്ട് ചെയ്യുന്ന ക്യാമറകൾ ഉണ്ടായിരുന്നു പലർ ഗിഫ്റ്റായിട്ട് തന്നിട്ടുള്ള ചൈനയുടെ മോഡലും തയ്വാൻ അങ്ങനെയുള്ള ഉള്ളപ്പോൾത്തന്നെ ഭയങ്കര ഇൻട്രസ്റ്റഡായിട്ടാ ഞാൻ മുന്നോട്ട് പോയികൊണ്ടിരുന്നേ ഫോട്ടോ എന്നുപറയുന്നത് എനിക്ക് ഫോട്ടോ ഷൂട്ട് എന്നു പറയുന്നത് വളരെ താല്പര്യമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ടുതന്നെ വളുപ്പ് വെളുപ്പിനുള്ള ഫോട്ടോകൾ അതുപോലെ സൺ സൺ സൈറ്റും അങ്ങനെ ഒക്കെ സൂര്യാസ്തമനവും സൂര്യ ഉദയം ഒക്കെ പലപ്പോഴും പല സ്ഥലങ്ങളിലും പോകുമ്പോൾ കന്യകുമാരിയിലൊക്കെ പോകുമ്പോൾ അതൊക്കെ എടുത്തിക്കാൻ വേണ്ടി ഞാൻ അവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട് അതിനുവേണ്ടിത്തന്നെ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പം അതു ഭയങ്കര ഇൻട്രസ്റ്റഡാണ് ഫോട്ടോ എടുക്കുകയെന്ന് പറയുന്നത് ഫോട്ടോ എടുക്കുകയെന്നുള്ളതല്ല അതെടുത്തുകഴിഞ്ഞാൽ അത് കാണുക എന്നുള്ളതാ പല രീതിയിൽ പല സാഹചര്യങ്ങളിൽ വെട്ടക്കുറവിലും വെട്ടം ഉള്ളപ്പോളും ഒക്കെ അത് എടുത്തുകൊണ്ട് അതിൻ്റെ രൂപവും ഭാവവും ഒക്കെ ആസ്വദിക്കുകയെന്നുള്ളത് വളരെ ആസ്വദിക്കുന്ന കൂട്ടത്തിലാ ഞാൻ അപ്പം ലൈറ്റ് ഒക്കെ ഇട്ടുകൊണ്ടും ചെയ്തിട്ടുണ്ട് ലൈറ്റിൻ്റെ വ്യത്യാസങ്ങളൊക്കെ വരുമ്പോഴത്തേന് ലൈറ്റ് അത് ഫോട്ടോയിൽ അത് പ്രതികരി പ്രതിഫലിക്കുമെന്നുള്ളതാ പലതരത്തിൽ അത് പ്രതിഫലിക്കുമെന്നുള്ളതാ വ്യത്യസ്തരീതിയിലുള്ള ലൈറ്റിഗ് ഒക്കെ ഇട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് ക്രിസ്തുമസ്സൊക്കെ വരുമ്പോഴത്തേനും പല പള്ളികളിൽ പോയി ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട് ആ ലൈറ്റോടിൻ്റെ വ്യത്യാസങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ടുതന്നെ എന്നിട്ട് അത് ഞാൻ പലർക്ക് പ്രചരിപ്പിക്കും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇലക്ട്രോണിക്സ് മാധ്യമങ്ങളിൽക്കൂടെ നമ്മൾക്ക് പല മാധ്യമങ്ങളിൽക്കൂടി പ്രചരിപ്പിക്കുവാൻ സാധിക്കും അത് ഞാൻ പ്രചരിപ്പിക്കാറുമുണ്ട് കാരണം അതിൻ്റെയാ ഒരു താൽപര്യക്കൂടുതലുകൊണ്ടാണ് ചിലപ്പോൾ ഒരുപക്ഷേ പലരും എനിക്ക് കമൻഡ് ഇടാറുണ്ട് ഇത് എന്താ ഈ കാണിക്കുന്നതെന്ന് പക്ഷേ ആ ഫോട്ടോയോട് ഉള്ള താൽപര്യം ഫോട്ടോ ഷൂട്ടിനോടുള്ള താൽപര്യം ഇതൊക്കെ മുൻനിർത്തിക്കൊണ്ട് പലപ്പോഴും അങ്ങനെയുള്ള ഫോട്ടോ ഷൂട്ടിങ്ങിൽ ഞാൻ വെളുപ്പിനെ പോകാറുണ്ട് പല സാഹചര്യങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ തപ്പിപ്പിടിച്ച് എതെങ്കിലും കാര്യങ്ങൾ ഉത്സവങ്ങൾ നടക്കുമ്പോൾ ആനയുടെ ഒക്കെ ഫോട്ടോ എടുക്കാൻ രാത്രികാലങ്ങളിൽ വെളുപ്പിനേയും അങ്ങനെയൊക്കെ പോകാറുണ്ട് അതൊക്കെ ശരിക്കും ഇൻട്രസ്റ്റഡായിട്ട് തന്നെയാ എനിക്ക് തോന്നിയിട്ടുള്ളത് ചിത്രത്തിൻ്റെ അവസ്ഥയെന്നു പറയുന്നത് ലൈറ്റ് ഇട്ട് എടുക്കുമ്പം വരുന്ന ഫോട്ടോ അല്ല ലൈറ്റ് ഇല്ലാതെ എടുക്കുമ്പം അതിൻ്റെയാ ഒരു ഷെയ്ഡും അത് കാണാനൊരു പ്രത്യേക ആസ്വാദ്യമാണ് അങ്ങനെ വ്യത്യസ്ത രീതിയിൽ ഉള്ള ഫോട്ടോ ഷൂട്ടുകൾ ഞാൻ നടത്തിയിട്ടുമുണ്ട് ആസ്വദിച്ചിട്ടും ഉണ്ട് ഇനിയും വരുന്ന ദിവസങ്ങളും ഒക്കെ കിട്ടുന്ന കിട്ടുന്ന ഫോട്ടോകൾ ഞാൻ കളക്റ്റ് ചെയ്ത് വെക്കാറും ഉണ്ട് അതിൻ്റെ ആസ്വാദീനം ഞാൻ ആസ്വദിക്കുകയെന്നുള്ളതല്ല മറിച്ച് മറ്റുള്ളവരെ ആസ്വദിപ്പിക്കുകയെന്നുള്ളൊരു ഉദ്യമനം കൂടി എൻ്റെ ഫോട്ടോ ഷൂട്ടിൽ ഉണ്ടെന്നുള്ളതാണ്